വ്യാജ വാർത്തകൾ കാണിക്കുന്ന ഇഷ്ടം പോലെ വാർത്തകൾ കണ്ടിട്ടുണ്ട് പല ചാനലുകളും മിക്കപ്പോഴും അവരുടെ റേറ്റിംഗ് കൂടുന്നതിന് വേണ്ടിയിട്ട് വ്യാജ വാർത്തകളാണല്ലോ കാണിക്കുന്നത് അങ്ങനെ കാണിക്കുന്ന മെയിനായിട്ടും കുറേ വ്യാജ വാർത്താച്ചാനലുകള് തന്നെയുണ്ട് അവര് റേറ്റിങ് മറ്റുള്ളവരേക്കാളും കൂടുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും തന്നെ വ്യാജ വാർത്തകള് കാണിച്ച് എല്ലാ ആളുകളെയും വിഡ്ഡികളാക്കുന്ന ചില ചാനലുകള് മെയിനായിട്ടുണ്ട് അതില് പേര് പറയാമോയെന്നറിയില്ല എങ്കിലും റിപ്പോർട്ടര് എന്ന് പറഞ്ഞ ചാനല് മിക്കപ്പോഴും റേറ്റിംഗ് കൂടുന്നതിന് വേണ്ടിയിട്ട് ഈ ഇങ്ങനത്തെ വ്യാജ വാർത്തകളാണ് പുള്ളി എടുത്തിടാറ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട് രാവിലെത്തന്നെ അതിനകത്ത് മിക്കപ്പോഴും എക്സ്ക്ലൂസീവാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് മുഴുവനും വ്യാജ വാർത്തകളായിരിക്കും അപ്പോള് അങ്ങനെയുള്ള വാർത്തകള് കാണിക്കുന്ന ചാനല് ഇഷ്ടം പോലെ വാർത്തകള് കണ്ടിട്ടുണ്ട് അത് എങ്ങനെയാണ് സമൂഹത്തെ ബാധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത് ഒരു സത്യവുമില്ലാത്തത് കാണിക്കുമ്പോള് ആ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവര് അവരുടെ തന്നെ ജീവിതത്തെ അത് വളരെയധികം മോശമായി അത് ബാധിക്കുന്നുണ്ട് അവർക്ക് പിന്നീട് സമൂഹത്തില് ഇറങ്ങിനില്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെയെല്ലാം വിഡ്ഡികളാക്കുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പോള് പലപ്പോഴും എ ഐയുടെ യുഗമാണല്ലോ എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുപറയുമ്പോള് അപ്പം അങ്ങനത്തെയൊരു യുഗമായതുകൊണ്ട് തന്നെ അപ്പം ഈ ഇപ്പോള് ഈയിടെ ഒരു വ്യാജ വാർത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെക്കുറിച്ച് കുറേ വർഷങ്ങള് കഴിഞ്ഞ് കേരളത്തില് അല്ലെങ്കില് ഇന്ത്യയില് ലോകത്ത് സംഭവിക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വാർത്ത വന്നു ആ അത് കണ്ടപ്പോള് അതെല്ലാവരും എല്ലാവരും വിശ്വസിക്കുകയാണ് ചെയ്തത് അത് മൊത്തം അപ്പോള് അങ്ങനെ വിശ്വസിച്ചതിന്റെ ഫലമായിട്ട് പലരും അതില് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ആ വാർത്ത അവതരിപ്പിച്ച ആൾക്ക് തന്നെ അത് അത് പത്രത്തില് വന്നതാണത് തലേ ദിവസത്തെ പത്രത്തില് അല്ല അന്ന് പത്രത്തില് വന്ന കാര്യങ്ങളാണ് അവര് വിശദീകരിച്ചത് പക്ഷേ അവര് ഇത്ര വർഷം കഴിയുമ്പോള് അതൊരു ഇമാജിനേഷന് ആയിരുന്നു അത് സാങ്കല്പികമായിട്ട് അവരുണ്ടാക്കി ഇട്ടതാണ് പത്രത്തിൽ അപ്പോള് അത് എഡിറ്റ് അല്ല അത് അവതരിപ്പിച്ചപ്പോള് അത് ആള് ശരിക്കും വായിച്ചിട്ട് അയാള് ആദ്യം വിഡ്ഡിയായി അയാള് വിഡ്ഡിയായിട്ട് മറ്റുള്ളവരെ വിഡ്ഡിയാക്കി വിഡ്ഡികളാക്കി പക്ഷേ അവസാനം അത് അറിഞ്ഞപ്പോഴത്തേക്ക് അവര് ആ വാർത്ത അതില് നിന്ന് തന്നെ ആ വ്യാജ വാർത്ത അത് പിന്വലിക്കുകയാണ് ചെയ്തത് അപ്പോള് അതുകൊണ്ട് അത് കണ്ടുകൊണ്ടിരുന്ന എത്ര പേരുടെ സമയം എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ നഷ്ടമായത് ഇപ്പം സമൂഹത്തില് ചിലപ്പോള് ഈ ചില വാർത്തകളെന്ന് പറയുമ്പോള് സമൂഹത്തെ അത് വളരെ മോശമായിട്ടെന്ന് പറഞ്ഞാല് അതിൻ്റെ ധാർമികതയും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സാന്മാർഗികമായ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പിന്നെ മോശമായിട്ട് അത് ബാധിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള വാർത്തകളൊക്കെ പ്രസിദ്ധീകരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ വ്യാജ വാർത്തകൾ കൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങളുണ്ടാകുന്നു അവർക്ക് അവർക്കത് പണം സമ്പാദന മാർഗ്ഗമായിരിക്കാം പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കത് വളരെയധികം അവർക്കത് അതവര്ക്ക് ഒരു സംഘർഷാവസ്ഥയിലേക്ക് അത് നയിക്കുന്ന ഒരു ഒരു ഘടകമാണ് ഈ വ്യാജവാര്ത്ത പ്രചാരണം ഇപ്പോള് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് ഈ കാലഘട്ടത്തില് നേരത്തെയൊന്നും ഇങ്ങനത്തെ വാർത്തകള് നമുക്കധികം കാണാൻ പറ്റില്ലായിരുന്നു സത്യമായ വാർത്തകളാണ് കൂടുതലും അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഈ ചാനലുകൾ തമ്മില് കിടമത്സരമുള്ളത് കൊണ്ട് അവര് തമ്മില് പരസ്പരം വളരെയധികം മത്സരിക്കുന്നുണ്ടല്ലോ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോള് ന്യൂസ് കിട്ടണം പിന്നെ വ്യാജ വാർത്തയോ എന്ത് വാർത്തയോ ആയിക്കോട്ടെ മറ്റുള്ളവരിൽ എത്തിക്കണം കുറേ വ്യൂവേഴ്സിനെ അതായത് കാഴ്ചക്കാരെ കിട്ടണം അതുകൊണ്ട് അവർക്ക് കുറേ പണം സമ്പാദിക്കണം അത് അത് മാത്രമേ അതില് നടക്കുന്നുള്ളൂ ഇതില് കാണുന്നവരും കേൾക്കുന്നവരും പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് ഇത് സത്യമാണോ മിഥ്യയാണോയെന്ന് നമ്മള് മനസ്സിലാക്കി കഴിയുമ്പോള് വിഡ്ഡികളാവുന്നതും നമുക്കത് ദോഷകരമായി എങ്ങനെയൊക്കെ ബാധിക്കുന്നുവെന്നുള്ളതൊന്നും അവർക്ക് അവരെ സംബന്ധിച്ചതൊരു പ്രശ്നമല്ല അവർക്ക് പണസമ്പാദനം മാത്രമാണ് മാർഗ്ഗം